ഹലോ ഇത് ഗെയ്ഡ് അല്ലേ ഞാൻ കോയമ്പത്തുനിന്ന് വേണ്ടി വിളിക്കുവാണെ ആ ഞങ്ങൾ ഫാമിലിയായിട്ടൊരു ട്രിപ്പ് വരുന്നുണ്ട് കോഴിക്കോട്ടേക്ക് അപ്പം ഫുള്ളായിട്ട് ഒന്ന് ഗെയ്ഡ് ചെയ്യുന്നതിനും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്നറിയാൻ വേണ്ടിയായിരുന്നു എങ്ങനെ ആ അതുതന്നെ തൃശൂർ ഏതൊക്കെയാണെന്നും ഗുഡ് നല്ല സ്പോട്ടും ആ ഓക്കെ ആ നമ്മൾക്ക് ഞാനീ മാസം ഇരുപത്തഞ്ചാം തീയ്യതിക്ക് എത്തും ട്വൻറ്റി ഫിഫ്ത്ത് വേറേ വേറെ നമ്മൾക്ക് ഫുള്ളായിട്ടുള്ള താമസിക്കാനുള്ള സൗകര്യം പിന്നെ ക്യാബ് അതെല്ലാം കൂടിയൊന്നു ട്രാവൽ ചെയ്യാനുള്ളതും നമ്മൾ നാല് നാലുപേരുണ്ടാവും ആ അതുമതിയാവും അവിടെ വന്ന് പിക്ക് ചെയ്യില്ലേ അത് എയർപ്പോർട്ടിൽ

ഞങ്ങൾ അത് കറക്റ്റ് തീരുമാനിച്ചില്ല ചിലപ്പം റെയിൽവേ സ്റ്റേഷൻ വഴിയായിരിക്കും ട്രെയിൻ വഴിയായിരിക്കും അപ്പം അങ്ങോട്ടേക്ക് വാ

ആ ഓക്കെ ഓക്കെ നോർമല് നോക്കിയാൽ മതി നോർമൽ റിസോർട്ടൊക്കെ അത്യാവശ്യം നല്ലൊരു സീനറി ഒക്കെയുള്ള ആ

ഒരു ഇപ്പോൾ ഏകദേശം വൺ വീക്ക് ലീവുണ്ടാവും ആ ആ ഇല്ലില്ല നമ്മൾക്ക് ഒറ്റയ്ക്ക് പോവല് ഇച്ചിരി റിസ്കാണ് അതുകൊണ്ട് ഒരാളെ കിട്ടുമായിരുന്നെങ്കിൽ ആ ഒ ആ ആ ഓക്കെ ഈ നമ്പറിൽ ചെയ്താൽ മതി ആ ഓക്കെ താങ്ക് യൂ